ഹ ഹലോ അതേ ബാർബർ ഷോപ്പാണ് അപ്പ്ച്ചി ആണോ മേൽട്ടൻ കട്ട് ആണോ എങ്ങനെയാണ് അതൊക്ക് നമുക്ക് അറിയത്തില്ല പേരൊക്കെ വേണേല് പറഞ്ഞ് തരാം മിൽറ്ററി കട്ട് അല്ലേ പറയുന്നത് ഹലോ ഏതോ മിൽറ്ററി കട്ട് അല്ലേ പറയുന്നത് ഇപ്പഴത്തെ ന്യൂ ഫാഷൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതൊന്നും നമ്മളുടെ എനിക്കറിയത്തില്ല എൻ്റെ കടയിൽ ഒരു ബംഗാളി ഉണ്ട് അവനറിയാം എന്ന് തോന്നുന്നു അത് ആ ബംഗാളിക്ക് അറിയാമായിരിക്കും കാരണം അത് ചോദിക്കേണ്ടി വരും ഇപ്പം ഇയാള് എവിടുന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ ഓ എന്തിനാടെ ഫ്രീക്കാനാക്കുന്നെ എനിക്ക് വെട്ടാനും അറിയത്തില്ല അത് കൊണ്ടാണ് പിന്നെ ഞാൻ എടാ വോൾസറൊക്കെ വെട്ടിയാൽ സ്കൂളില് കയറ്റുമോ മുളേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കൃതാവ് എടുത്ത് കളയാൻ അല്ലേ ഈ അറിയാവോ എന്ന് ചോദിച്ചാൽ ബംഗാളി ക്ക് ചോദിക്കേണ്ടി ഇരിക്കും പുള്ളി ഇന്ന് ലീവിലാണ് എന്നാണ് വെട്ടേണ്ടത് ആ ആ അതല്ല എന്നാണ് വെട്ടണ്ടത് ആ പത്തരക്ക് ശേഷം ഒരു പതിനൊന്നാരക്ക് ശേഷം വരുമോ ആ ഉണ്ട് ആ ബംഗാളി ക്ക് വെട്ടാന് അറിയാം അവൻ നന്നായിട്ട് വെട്ടിത്തരും നിൻ്റെ മുള്ളാറ്റോ മുല്ലാറ്റോ എന്തോ വൺ സൈഡോ ടൂ സൈഡോ എന്തൊക്കെ വെട്ടി തരും അവൻ ഇവിടെ ഇവിടെ വെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളറ്റ് എന്ന് പറഞ്ഞൊരു കട്ട് ഉണ്ടിവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ബംഗാളിയാണ് വെട്ടുന്നത് ആ ഇവിടെ ഉണ്ട് സാധനം ബോർഡിലുണ്ട് ആ വയ്ക്കാം എന്ന് പറയുമ്പം ഈ കളറൊക്കെ അടിക്കേണ്ടി വരുമോ ആ കളറൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ ആ അതവരോട് പറഞ്ഞേക്കാം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെട്ടി കൊണ്ട് നടക്കുന്നത് അപ്പോൾ കളർ അടിക്കണം മുടി മുള്ളറ്റ് അടിക്കണം അല്ലെ ആ ബംഗാളിയോട് ഞാൻ സംസാരിക്കാം പിന്നെ മുടി സ്ട്രെയിറ്റ് ഒന്നും ചെയ്യണ്ടല്ലോ

കളർ അടിക്കുന്നതിന് ഇത് നൂറ്റമ്പത് ആ

ക നൂറ്റമ്പത് ആണ് കളറടിക്കുന്നതിന് കളർ അടിച്ചിട്ട് എൻബത് രൂപ മുടി വെട്ടാൻ മുല്ലെറ്റ് അടിക്കാൻ അപ്പം ഇരുന്നൂറ്റി മുപ്പത് കൊണ്ട് വന്നാൽ മതി ആ അപ്പം ശരി ആ എന്നാൽ പതിനൊന്നാരയ്ക്ക് ശേഷം വന്നോ ആ ഒക്കെ ഒക്കെ ഞാൻ അവനോടു പറഞ്ഞ് വെച്ചേക്കാം ശരി ആ അത് അവൻ വെട്ടും അവൻ സെറ്റ് ആയിട്ട് വെട്ടും ഉം ശെരി